ഹലോ ഹലോ അതെ പറഞ്ഞോളൂ മേഡം ആ ഓക് ആ ഓക്കെ മേഡം നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ഒരു സിക്സ് ഡബിൾ ണയൻ തൊട്ടാണ് ബേഹ് ജെൻറ്റ്സിൻ്റെ ഒക്കെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സ് വെയറൊക്കെ ആണെങ്കിൽ ഫോർ ഡബിൾ ണയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമുക്കിപ്പോൾ ആ അങ്ങനെ കൊറവൊന്നും ഇല്ല മേഡം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ത്രീ തൗസൻഡിൻ്റെ ഒക്കെ പർച്ചേസാണെങ്കിൽ നമുക്ക് ഒരു ഫിഫ്റ്റി പേഴ്സെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും ഇതിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള ഡിസൈൻസ് തന്നെയാണ് കൂടുതലും വന്നേക്കുന്നത് പിന്നെ ഷേഡ്സിലും കാര്യത്തിലും ഇതിലൊക്കെയാണ് കൂടുതലും ഇത് വന്നേക്കിന്നെ ടീ ഷർട്ട് കാര്യങ്ങൾ ഇപ്പോൾ ജീൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജീൻസിൻ്റെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് ബാഗി ടൈപ്പ് ജീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ക്രോപ്പ് ആ നമുക്കങ്ങനെ ഗോൾഡ് ഇപ്പം അങ്ങനെ വന്നേക്കുന്നത് കൂടുതലും നമുക്ക് എന്താ പറയാ സെറ്റും മുണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഓണത്തിൻ്റെ ടൈമിൽ നമ്മൾ കൂടുതലും ഇറക്കാറ് ആ അതൊക്കെ ഉണ്ട് മേഡം നമ്മളൊരു ഓക്കെ നമ്മളൊരു പത്ത് മണി വരെ ഒക്കെ ഉണ്ടാവും മേഡം ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം മേഡം ഓക്കെ ആ